പഴയ തലമുറയിലെ യുവാക്കൾ അല്ലങ്കിൽ മനുഷ്യരിലിന്നിലും ഇപ്പോഴുള്ള കുട്ടികളിലും വളരെ അധികം മാറ്റങ്ങളുണ്ട് ഇതിലൊന്ന് പഴയ തലമുറയുടെ വിദ്യാഭ്യാസ രീതിയും ഇന്നത്തെ തലമുറയുടെ വിദ്യാഭ്യാസ രീതിയും വളരെ വ്യത്യസ്തമാണ് ഇപ്പോൾ തൊള്ളായിരത്തിലെ ആളുകളും രണ്ടായിരത്തിലെ കുട്ടികളുടെ വച്ച് നോക്കുമ്പോൾ തൊള്ളായിരത്തിലുള്ള ആളുകൾക്ക് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ മൊബൈലിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാച്ചാൽ അവർക്ക് എടുക്കാൻ പറ്റില്ല അതേ സമയം ഇപ്പോൾ ഉളള പിള്ളേർ പിള്ളേർടെ അടുത്ത് മൊബൈല് കൊടുത്തിട്ട് നമ്മളെന്ത് പറഞ്ഞാലും അവര് ഒന്ന് കൂടെ അവർക്ക് എന്തായാലും അറിയും അപ്പോൾ കൊച്ചു കുട്ടിക്കാണെങ്കിലും യൂട്യൂബെടുക്കാനും അതിലെ പാട്ടുകള് വക്കാനും ഇല്ലങ്കിൽ അവന് വേണ്ട വീഡിയോകളെടുക്കാനും അവർക്ക് അറിയാം എന്നാ അതുപോലെ തന്നെ പഴയ തലമുറയിലുള്ള ആൾക്കാർക്ക് ഈ ഫോണ് കൊടുത്തിട്ട് എടുക്കാൻ പറഞ്ഞാച്ചാല് അവർക്കത് അറിയില്ല അപ്പോൾ വളരെ അധികം വ്യത്യസ്തമായ ലോകമാണ് രണ്ട് തലമുറകളുടെ ഇടയിലുള്ളത് ഇതില് കൈകാര്യം ചെയ്യാം നമ്മൾക്ക് പുതിയ തലമുറക്ക് കൂടുതലായി നമ്മക്ക് പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല അവർ ഇപ്പം അവർക്ക് വേണ്ടത് അവർ ഗൂഗിളിൽ നിന്നോ ഇല്ലെങ്കിൽ മറ്റ് വഴികളിൽ നിന്നവര് തെരഞ്ഞെടുക്കും ഇല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഒരേ ജില്ലയില്ല് ഇപ്പം പണ്ട് നമുക്ക് ഫ്രണ്ട്സായിട്ട് ഉണ്ടായിരുന്നത് സ്വന്തം വീടിനടുത്തുള്ളവരും തൊട്ട് ആ ജില്ലേലുള്ളവരും ആയിരിക്കും ഇല്ലെങ്കിൽ ആ സ്കൂളിൽ ഉള്ളവര് ആയിരിക്കും ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ പുതിയ തലമുറക്ക് എന്താന്ന് വച്ചാൽ രാജ്യത്തിന് പുറത്ത് നിന്ന് വേറെ രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഫ്രണ്ട്സുണ്ട് അപ്പോൾ അവരുടടുത്ത് ചോദിച്ചിട്ടായാലും എങ്ങനെ ആയാലും അവര് വേണ്ടത് കണ്ട് പിടിക്കാനും ഇല്ലെങ്കി മറ്റ് സാധനങ്ങളിലെത്തിക്കാന് അത് കണ്ടുപിടിക്കാനും വേണ്ടാതെടുക്കാനും അവർക്കറിയാം പക്ഷെ പഴയ തലമുറക്ക് ഇതൊന്നും അറിയില്ല ഇപ്പം വ്യത്യസ്തമായ ലോകമാണ് ഇരു തലമുറകൾക്കും ഇടയിൽ വരുന്നത് അതുകൊണ്ടുള്ള വ്യ വ്യത്യസ്ഥത കൈകാര്യം ചെയ്യാൻ ഇപ്പം മധ്യ തലമുറക്കാരൻ എന്നുള്ള നിലക്ക് എനിക്ക് വളരെ ഈസി ആയി സാധിക്കും കാരണം പഴയ തലമുറയുടെ ആൾക്കാര് പുതിയ തലമുറകളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും മനസ്സിലാക്കാനും അവരെ കൊണ്ടത് പ്രാവർത്തികമാക്കാനും എനിക്ക് സാധിക്കും നമുക്ക് അത്രക്ക് കൺവീനിയന്റ് ആയി പറഞ്ഞ് കൊടുക്കാനും അല്ലെങ്കിൽ നമ്മൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാനും അല്ലെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ പോലെ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡെമോ ആയി കാണിക്കാനും നമുക്ക് സാധിക്കും അത് ഇന്റർനെറ്റ് വഴിയായാലും അല്ലെങ്കി ഓൺലൈൻ വഴി ഇല്ലെങ്കിൽ ഓഫ്ലൈൻ വഴിയായാലും നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഇവ കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റും അങ്ങനെ കൈകാര്യം ചെയ്യാറുമുണ്ട് പല സാഹചര്യങ്ങളിലും പ്രായക്കൂടുതലുള്ള മനുഷ്യരക്കെ പുതിയ തലമുറയുടെ ടെക്നോളജികളെ കുറിച്ച് ആല്ലെങ്കിൽ അവരുടെ പുതിയ എന്തെങ്കിലും കുറിച്ച് എനിക്ക് പറഞ്ഞ് കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് അതുപോലെ പുതിയ കുട്ടികൾക്ക് പഴയതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും എനിക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഇപ്പോൾ വരുന്ന തലമുറക്കായാലും ഇപ്പോഴുള്ള തലമുറക്കായാലും എല്ലാം മാറി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് അപ്ഡേറ്റ് ആകണമെന്നുണ്ട് പഴയ തലമുറയെ പോലെ പുസ്തകത്തിലുള്ള പഠിപ്പെല്ലാം മാറി ഇപ്പോളെല്ലാം വിരൽ തുമ്പിൽ കിട്ടും എന്ത് വേണം ഇപ്പോൾ ഇന്ത്യയുടെ പ്രസിഡൻറ് ആരാണെന്ന് ചോദിച്ച് വച്ചാൽ എല്ലാം അവിടുന്നും ഇവിടുന്നാണെങ്കിലും കിട്ടും അതുകൊണ്ട് തന്നെ വളരെയധികം വ്യത്യസ്തമുണ്ട് ഇവ ഇവര് രണ്ട് പേര് കൈകാര്യം തം ചെയ്യുന്നത് തമ്മിലും എല്ലാത്തിലും ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ര ഒരു നമ്മുടെ തലമുറകളുടെ ഒരു കിടപ്പ്